ആദ്യം തന്നെ നമ്മള് ഇ പി എഫ് പോർട്ടലില് ന്യൂ സൈറ്റെടുക്കുക ഈ പോർട്ടലെടുത്തതിനുശേഷം നമ്മളാ യൂസർ ഐ ഡിയും പാസ്വേഡും അടിച്ചുകഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിനു ശേഷം നമുക്ക് ലോണ് എന്തിനാണോ ആവശ്യം ആ ആവശ്യവും കൊടുത്ത് എത്ര തുക വേണമോ എന്നതു കൊടുക്കുക പിന്നെ എന്താക്കുക എത്ര തുകയാണ് വേണ്ടത് അതിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തുകഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്ത് അപ്ലൈയെയ്യാ പിന്നെ ഇതാണ് ലോണിൻ്റെ കാര്യങ്ങള് അതിനാവശ്യായ ഇത്രയും ചെയ്യണം ലോണിൻ്റെ അതിനാവശ്യമായ സാധനങ്ങളെന്നു പറയുമ്പോള് നമ്മള്ക്ക് സർട്ടിഫിക്കേഷന് വേണം മാര്യേജിൻ്റെ ഒരു ഇത് ക്ഷണക്കത്തിൻ്റൊരു കോപ്പി വേണം പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് വേണം പിന്നെ യു എ എൻ അഡ്രസ്സ് അതിൻ്റെ യു എ എൻ ഡീറ്റെയിൽസ് വേണം പിന്നെ നമ്മള ഒരാധാർ കാർഡിൻ്റെ കോപ്പി ഏതെങ്കിലുെം ഒരു ഐ ഡി പിന്നെ ബാങ്ക് പാസ് ബുക്കിൻ്റെ കോപ്പി ബാങ്കിലക്കൗണ്ട് നമ്പര് ഐ എഫ് എസ് സ്സി കോഡ് അക്കൗണ്ട് ഹോൾഡർ നെയിം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വച്ചിട്ടാണ് അത് ഉണ്ടാക്കാൻ അപ്ലൈ ചെയ്യാൻ ഇത്രയും കാര്യങ്ങള് കൊടുത്താല് നമ്മള്ക്കാവശ്യമായ തുക എന്താണാവശ്യം ഇത്രയും കൊടുത്തപ്ലൈ ചെയ്തുകഴിയുമ്പോള് അവരെന്താക്കും അപ്രൂവെയ്യും അപ്രൂവ് ചെയ്തുകഴിയുമ്പോള് നമ്മള്ക്ക് ലോൺ തുക നമ്മളുടെ അക്കൗണ്ടിലേക്കിടുകയും നമ്മള്ക്കതു പിൻവലിക്കാൻ പറ്റുകയും ചെയ്യും ഇങ്ങനെയാണു ചെയ്യേണ്ടത് പിന്നെ ഇതാണതിൻ്റെ മെയിൻ കാര്യം മെയിനായിട്ട് പോർട്ടൽ രൂപം കൊള്ളുമ്പോള് അതിൻ്റെ പാസ്വേർഡും ഐ ഡിയും മറന്നുപോകാതിരിക്കുക യു എ എൻ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും കൃത്യമായിട്ടു കൊടുക്കുക